ഞാൻ എഴുതാനാഗ്രഹിക്കുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയത്തെക്കുറിച്ചിട്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ശക്തിയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയത്തിനു തന്നെയാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയത്തെ പറ്റിയിട്ട് സംസാരിക്കാനാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ മതിയാവില്ല കാരണം ഞാനും ഒരു പ്രണയിച്ച വ്യക്തിയായതു കൊണ്ട് നമുക്കറിയാം എങ്ങനെയാണൊരു പ്രണയത്തെ കൈകാര്യം ചെയ്യുന്നതിനെത്ര ലളിതമായിട്ടാണാ പ്രണയം നടക്കണതൊക്കെ നമുക്ക് അറിയാം അതുപോലെ തന്നെ നമ്മളൊരുപാട് പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള കവികളും എന്താ കഥാകൃത്തുക്കളും ഒരുപാട് അതിന് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് പ്രണയം അതുകൊണ്ടു തന്നെ ഞാൻ ഒരു എന്തെങ്കിലുമൊരു രീതികൾ ആഗ്രഹങ്ങൾ പ്രകാരം എന്തെങ്കിലും സന്ദേശം പുലർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രണയിക്കുക പ്രണയത്തിലൂടെ ലോകം കിഴടക്കാം എന്നുള്ളത് തന്നെയാണ് എനിക്കും പിന്നെ നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെയും എഴുതി എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു വിഷയം എന്നു പറഞ്ഞാൽ മതം തന്നെയാണ് കാരണം കാലം കഴിയും തോറും ആൾക്കാരുകൾ മതതീവ്രമായ ചിന്താഗതികൾ ഒന്നുകൂടി സെൻസിറ്റീവാകുന്ന രീതിലാണെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം ഇന്ന് നമുക്ക് നോക്കിയാലറിയാം ഓരോ പൊളിറ്റിക്കൽ പാർട്ടികൾ വരെ എന്താ മതപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് പോലെ മുൻപായി നടന്നത് ഒന്നില്ലെങ്കിൽ മതത്തെ വിറ്റു കൊണ്ടാണവർ എന്നും ജീവിക്കണത് അതുകൊണ്ട് അതൊരു സെൻസിറ്റിവായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ് മതം എന്നുള്ളത് വർഗ്ഗീയത എന്നുള്ളതൊക്കെ